ആ ഓക്കേ ആ ഉവ്വ് ആ സ്നാക്കൈറ്റംസ് ഉണ്ട് പിന്നെ ടീ കോഫിയുണ്ട് പിന്നെ അതുപോലെതന്നെ ചെറിയ രീതിയില് മറ്റേ മസാല ദോശ നെയ് റോസ്റ്റ് പൂരി മസാല ആ ഉവ്വ് ഉവ്വ് ആ ഐറ്റംസൊക്കെയുണ്ട് ഇല്ല നോൺ വെജ്ജില്ല നോൺ വെജ്ജില്ല ഞങ്ങളത് അമ്പലത്തിൻ്റെ അടുത്തുള്ള കടയായത് കൊണ്ട് നോൺ വെജ്ജ് ഉപയോഗിക്കുന്നില്ല ഞങ്ങള് കുടുംബശ്രീയുടെ ആൾക്കാര് നടത്തുന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് നമ്മള് ഹോംലി ഫുഡ്ഡുകളാണ് വീട്ടില്നിന്നുണ്ടാക്കി കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോള് അതുകൊണ്ട് നല്ല ആ അതെ അതെ ആ ചോറ് ചോറൈറ്റംസില്ല നമ്മള് രാത്രി ഒരാവുമ്പോഴത്തേക്കും അടയ്ക്കും കട ഇങ്ങനത്തെ സ്നാക്കൈറ്റംസുകള് പിന്നെ ഈ പൂരി മസാല പിന്നതുപോലെ തന്നെ ഇങ്ങനെ നെയ് റോസ്റ്റ് മസാല ദോശ വട പിന്നെ ചെറു കടികളൊക്കെയുണ്ട് ആ ഉണ്ടംപൊരി അങ്ങനെ പഴംപൊരി ആ ഐറ്റംസൊക്കെ ഈ ഐറ്റംസൊക്കെ നമ്മളത് ചെയ്യാറുണ്ട് അടുത്തൊക്കെ ഒരു കിലോമീറ്റര് അകലമുള്ള സ്ഥലങ്ങൾ അടുത്തുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കില് നമ്മള് ചെയ്യാറുണ്ട് ഹോം ഡെലിവറി നിങ്ങളിവിടെ താമസിക്കുന്നുണ്ടോ ആ ഓ ഓ ഓ ആ രാവിലെ രാവിലെയൊക്കെയുണ്ട് ഉണ്ടുണ്ട് ആ എത്തിക്കാം എത്തിക്കാം അതെ അമ്പലോപ്പത് അടുത്തുതന്നെയാണ് എത്തിക്കാം അമ്പലം അടുത്തുതന്നെയാണ് എത്തിക്കാം ആയിക്കോട്ടെ ഉം ആയിക്കോട്ടെ അപ്പോള് പാഴ്സല് വേണം ആ അപ്പോള് എന്താണു വേണ്ടതെന്ന് പിന്നൊന്ന് വരുന്ന സമയത്ത് നിങ്ങളൊന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കില് ആ നമുക്ക് നാളെ ഒരു എത്തിക്കാൻ പറ്റും അതെ അതെ ആയിക്കോട്ടെ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ താങ്ക് യു